എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കായിക വിനോദമായിരുന്നു ഫൂട്ബോൾ കാരണം ചെറുപ്പം മുതലേ ഞാൻ ടിവിയിൽ കണ്ടുവരുന്ന കായികം ആയിരുന്നു ഫുഡ്ബോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവ ആയിരുന്നു അതിലെ കളിക്കാരും അവരുടെ സ്വഭാവങ്ങളും പിന്നെ അവരുടെ ജീവിത ശൈലികളും കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു പിന്നെ എൻ്റെ ചെറുപ്പ കാലത്ത് സ്കൂൾ ടീമിലും ഞാൻ മറ്റും കളിച്ചിരുന്നു സ്കൂൾ ടീമിലും നാട്ടിലെ ചെറിയ ചെറിയ ക്ലബുകളുമെല്ലാം കളിച്ച് അത്യാവശ്യം കളിക്കുമായിരുന്നു ഇപ്പോൾ താല്കാലികമായി പഠനത്തിനുവേണ്ടി എൻ്റെ ഫൂട്ബോൾ കരിയർ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് പക്ഷെ മറ്റെന്തിനെക്കാളും എനിക്കു പ്രിയപ്പെട്ടതായിരുന്നു ഫൂട്ബോൾ എന്ന കായിക വിനോദം വളരെ പ്രിയപ്പെട്ട ഞാനൊരു മെസ്സി ഫാനായിരുന്നു മെസ്സിയുടെ ആരാധകനായിരുന്നു മെസ്സി അർജൻറിന വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ളാദിച്ച കൂട്ടത്തിലൊരാളായിരുന്നു ഞാൻ